സംസ്ഥാനത്തെ മതപരമായ പല ലാൻഡ്മാർക്കുണ്ടെങ്കിൽ പോലും എനിക്ക് ഏറ്റവും കൗതുകകരവും പ്രധാനമായും തോന്നുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പദ്മനാഭ സ്വാമി ക്ഷേത്രമാണ് പദ്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവന്തപുരത്തെ ഈയൊരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാല് ഈയൊരു ഗോപുരത്തിനകത്തു ഒരുപാട് അറകളുണ്ട് അതുപോലെ പ്രധാനമാണ് ഈയൊരു ക്ഷേത്രത്തിൻ്റെ ആയൊരു രീതി പദ്മനാഭസ്വാമിക്ഷേത്രത്തിൽ അനന്തശ അനന്ത പദ്മനാഭൻ്റെ ഒരു വിഗ്രഹമാണ് അതിൽ ഉള്ളത് ഈ അനന്തപത്മനാഭൻ ശയനം ചെയ്യുന്ന ഒരു വിഗ്രഹത്തിൻ്റെ ഒരു ആകൃതിയിലാണ് ആയൊരു പദ്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പോലെ തന്നെ ഒരുപാട് അറകളുണ്ട് പല അഭ്യൂഹങ്ങൾ കേൾക്കുന്നതിൽ ഒന്ന് പറയുന്നത് ഈയറകളിൽ ഒരുപാട് എന്തേ രത്നങ്ങളും സ്വർണങ്ങളും അങ്ങനത്തെ ഇങ്ങനത്തെ തുടങ്ങിയ ഒരുപാട് വസ്തുക്കളുണ്ടെന്ന് ആണ് കേട്ട് വരുന്നത് ഈയൊരു ഈയൊരു സവിശേഷതയിൽ അല്ലെങ്കിൽ ഈയൊരു ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് സ്ത്രീകൾക്കവിടെ പ്രവേശനം ഉണ്ട് എന്നിരുന്നാൽക്കൂടി അവർക്ക് ചുരിദാർ പോലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആയൊരു ഒരു ക്ഷേത്രത്തിൽ പ്രവേശനമില്ല സാരി അല്ലെങ്കിൽ സാധാരണയായി കണ്ടുവരുന്ന പട്ട്പ്പാവാട തുടങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ട് മാത്രമെ സ്ത്രീകള്ക് അവിടെ ആയൊരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായി സാധിക്കുകയുള്ളു പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വിദേശികളും അല്ല അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് ആളുകൾ ഈയൊരു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സവിശേഷതകൾ മനസ്സിലാക്കി ഇങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ വരുന്ന സമയത് അവര് ഒരുപാട് കൗതുകപര കൗതുകപരമായയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറംലോകത്തോട് അ അറിയിക്കുകയും അത് മാ ടൂറിസ്റ്റുകളെ അല്ലെങ്കിലും പുറത്ത് നിന്ന് വരുന്ന ആൾക്കാരെ അത് ആകർഷിക്കുകയും അങ്ങനെ അവർ ഈയൊരു ക്ഷേത്രം സന്ദർശിക്കാനായി പല ദിവസങ്ങളിലായി ഒരുപാട് പേർ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഈയൊരു തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാനമെന്ന് പറയുന്നത് ഈ പദ്മനാഭസ്വാമിക്ഷേത്രമാണെന്ന് ആണ് എൻ്റെ ഒരു നിഗമനം